കീടനാശിനികളുടെ ഉപയോഗം എന്നു പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ പച്ചക്കറികളിലാണെങ്കിലും പച്ചക്കറികളിൽ നമ്മൾ കീടനാശിനികൾ ചീത്തയാകാതിരിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു പക്ഷേ അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളത് പാകം ചെയ്ത് നമ്മടെ ശരീരത്തിനുള്ളിലേക്കാണ് അത് കഴിച്ചു കഴിഞ്ഞാൽ വരുന്നത് അപ്പോഴത്തേക്കും നമുക്ക് പല മാരകമായ അസുഖങ്ങൾ വരും നമ്മൾ കാൻസറ് പോലെയുള്ള ഉള്ള അസുഖങ്ങൾ നമ്മളെ കാർന്നുതിന്നും അതുകൊണ്ട് കഴിവതും നിങ്ങൾ കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കണം കീടനാശിനികളുടെ ഉപയോഗം നമ്മൾ മണ്ണിൽ ചെയ്തുകഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ നടുന്ന ചെടികളൊന്നും ആരോഗ്യത്തിൽ വളർന്നു വരത്തില്ല അതുകൊണ്ട് ചെടികളെ ചെടികളെ നശിപ്പിക്കാനേ അത് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് കഴിവതും കീടനാശിനികൾ ഉപയോഗിക്കാതെ ഇരിക്കുക